പണ്ട് കാലങ്ങളിലുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് നമ്മളെ സംബന്ധിച്ചെടുത്തോളം നല്ല പക്വത പക്വതയുള്ളതും അടക്കോം ഒതുക്കമുള്ളതുമായ വസ്ത്രം ഒരു പാവാട പിന്നെ നല്ലൊരു ബ്ലൗസ് അപ്പോൾ അതൊരു നല്ലൊരു രീതിയായിരുന്നു അത് നമ്മൾ തുണിയെടുത്ത് നമ്മൾ തയ്യ്പ്പിക്കുന്ന ഒരു നിലവാരത്തിലായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്ന ഇപ്പോൾ അതെല്ലാം മാറി ജീൻസായി കീറി അവിടെയും ഇവിടെയും കീറി തൊളയുള്ള വസ്ത്രങ്ങളായി അത് കംഫർട്ടബിളാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലെങ്കിൽ അല്ല ഏതെങ്കിലും രീതിയിലൊരു വസ്ത്രം ഇട്ടോണ്ട് പോകാൻ വസ്ത്രധാരണത്തിലിപ്പം അത്ര വലിയ മാമൂലികൾ ഇപ്പം നിലവിലില്ല അതൊരു പോരായ്മയാണ് അത് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ